കോളേജിൽ പഠിക്കുന്ന സമയം ഒരു ചിത്രരചന മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ മൂന്നാം സ്ഥാനം നേടുകയും ചെയ്തു എങ്കിലും വരക്കാനുള്ള പൂർണ്ണമായ ഒരു കഴിവ് ഇല്ലാത്തതിനാൽ പിന്നീട് ചെറിയ ചെറിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് അല്ലാതെ വലിയ രു ചിത്രം രചനയിലേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നാൽ എൻ്റെ സഹോദരി നന്നായി പടം വരയ്ക്കുകയും അത് പ്രദർശിപ്പിക്കയും ചെയ്യുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു അഭിമാനം തോന്നാറുണ്ട് പഠിക്കണം എന്നുള്ള ആഗ്രഹവും തോന്നാറുണ്ട് എന്നാൽ തിരക്കുകൾക്ക് ഇടയിൽ വീണ്ടും പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്തതിനാൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല ചിത്ര രചനയെ സൂക്ഷ്മമായി പഠിച്ച ശേഷം മാത്രം വരച്ചാലെ അത് പൂർണ്ണമായ ഒരു കലാ സൃഷ്ടി ആയി തീരുകയുള്ളു അതുകൊണ്ട് മറ്റുള്ളവർ വരയ്ക്കുമെന്ന് പറഞ്ഞാലും ആ ചിത്രത്തിൽ ഒരു പൂർണ്ണ തൃപ്തി നേടാൻ ഒരിക്കലും സാധിച്ചിട്ടില്ല പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ റെക്കോർഡുകൾ ഒക്കെ വരയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും ചിത്രം വരയ്ക്കും എന്നുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ഉണ്ടായിട്ടും ഉണ്ട് എന്നാലും നമ്മളുടെ മനസ്സിന് തൃപ്തി വരുന്ന തരത്തിലുള്ള ഒരു ചിത്രം വരയ്ക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല

അതുപോലെയുള്ള ചിത്ര രചനയിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല കാരണം ചിത്രരചനയുടെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി വരച്ചാൽ മാത്രമേ ഒരു ചിത്രം പൂർണ്ണമായി തീരുകയുള്ളൂ